പതിമൂന്ന് ഒമ്പത് ആയിരത്തിത്തൊള്ളായിരത്തിത്തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തിയൊന്ന് ഏഴ് ആയിരത്തിത്തൊള്ളായിരത്തിത്തൊണ്ണൂറ്റൊമ്പത് പതിമൂന്ന് ഏഴ് ആയിരത്തിത്തൊള്ളായിരത്തിത്തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് ഇരുപത്തി ഒന്പത് എട്ട് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന്